ഞങ്ങൾ ഞാൻ സ്വന്തമായി നിർമ്മിക്കുന്ന ആളല്ല നമ്മൾ മറ്റുള്ള കടകളിലൊക്കെ പോയാണ് തുണികൾ വാങ്ങുന്നത് പിന്നെ തുണിയുടെ ക്വാളിറ്റി നോക്കും ഇപ്പം നമ്മളൊക്കെ ഒരു ഗ്രാമപ്രദേശത്തായതുകൊണ്ട് ഏതെങ്കിലും ഒരു നിശ്ചിത കടയിൽ നിന്നൊക്കെ ആയിരിക്കും ആളുകൾ കൂടുതലും തുണികൾ മേടിക്കുന്നത് അപ്പം ഒരാൾ എന്തെങ്കിലും ഒന്ന് മേടിച്ചു വന്നു പറയുകയാണ് അവിടെ നല്ല സെലക്ഷൻ ഉണ്ട് അവിടുത്തെ തുണി കൊള്ളാം അല്ലെങ്കിൽ പറയുക അവിടുത്തെ തുണി കൊള്ളത്തില്ല ഒന്നു വാഷ് ചെയ്തു കഴിഞ്ഞാൽ ആകെ കളറ് പോകുന്നു അപ്പം അങ്ങനെ പല രീതിയിലും പറഞ്ഞാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയുന്നത് അങ്ങനെയാണ് നമ്മൾ ഓരോ കടകൾ സെലക്ട് ചെയ്യുന്നതും ഇന്നടുത്ത് പോകുന്നതും മേടിക്കുന്നതും തുണികൾ പിന്നെ തയ്യൽ തയ്യലെന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ അടുത്ത് കൊടുക്കുക എന്നത് അതായത് നല്ല മോഡലുകൾ തയ്ക്കുന്ന ആളുകുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും അവരുടെ കൈവശം ഈ തുണി മേടിച്ച തുണി കൊണ്ടുപോയി കൊടുക്കുന്നതായിരിക്കും പിന്നെ ഓരോ മോഡലുകൾ അതിപ്പം നമ്മൾ ഇപ്പം ഇപ്പം ഞാനൊക്കെ എന്നു പറഞ്ഞാൽ വനിത ഗൃഹലക്ഷ്മി എന്നീ പുസ്തകങ്ങളിലെല്ലാം ഓരോ പലതരം മോഡലുകൾ അല്ലേ നല്ല നല്ല ഡിസൈനുകൾ എങ്ങനെയൊക്കെ തയ്ക്കാം അങ്ങനെ തയ്ച്ചാൽ ഇങ്ങനെയായിരിക്കും നമുക്ക് ചേരുന്നത് അതിനെക്കുറിച്ചൊക്കെ നല്ല നല്ല വിവരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഓൺലൈനാണെങ്കിലും ഇപ്പം ധാരാളം പുതിയ പു തിയ മെത്തേഡുകളൊക്കെ കാണും അപ്പ ആ രീതിയിൽ ഒന്ന് തയ്ച്ചിട്ടാൽ കൊള്ളമെന്ന് തോന്നുകയും ആരെങ്കിലും ആ ആ രീതിയിൽ തയ്ച്ചിട്ടത് നമ്മൾ കാണുകയാണെങ്കിൽ ആ ഇത് ഇത് കൊള്ളാം നന്നായിരിക്കുന്നു എന്ന് നമ്മൾ സ്വയം അതിനെക്കുറിച്ചു ഒരു വിലമതിക്കുകയും ചെയ്യുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പോൾ സാരി ബ്ലൗസാണെങ്കിലും ചുരിദാറാണെങ്കിലും അങ്ങനെ ഇപ്പോഴുള്ള പുതിയ പുതിയ മോഡൺ ഡ്രസ്സുകളൊക്കെ ആ രീതിയിൽ തന്നെ തയ്പ്പിച്ചെടുക്കുന്ന ഇപ്പം ഒരു സിനിമയിലാണെങ്കിൽ നമ്മൾ ഒരു വേഷം കണ്ടാൽ അതിനെ അനുകരിക്കുന്നവരാണ് കൂടുതൽ ആളുകളും അല്ലേ ഒരു കാലഘട്ടത്തിൽ ഇപ്പം ഞാനൊക്കെ സാരി ഉടുക്കുന്ന വ്യക്തിയാണ് അപ്പം ബ്ലൗസ് സ്ലീവ്ലെസ്സ് ഉണ്ട് ഒരു പകുതി കൈ ഇറക്കം ഒരു മുക്കാൽ ഭാഗം കൈ ഇറക്കം അങ്ങനെ പല രീതിയിലാകും അപ്പം അതൊക്കെ കൂടുതലും സിനിമയിലൂടെയൊക്കെയാണ് കാണുന്നത് ഓരോ നടികൾ ഇടുന്ന വേഷവിധാനങ്ങൾ കുറേയൊക്കെ നമ്മൾ അത് സ്വീകരിക്കും നല്ലത് മാത്രം മോശമായ രീതിയിലാണെങ്കിൽ അത് പറ്റത്തില്ല കാരണം എല്ലാവർക്കും അതു ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരികയില്ല വസ്ത്രധാരണത്തിൽ കൊണ്ട് നേരായ രീതിയിൽ മോഡലുകളൊക്കെ തയ്ച്ചിടുകയും നമ്മുടെ ശരീരത്തിന് ചേരുന്നതും മറ്റുള്ളവർക്ക് ഒരു മോശമായി തോന്നാത്ത രീതിയിലള്ള വസ്ത്രങ്ങളക്കെയാണ് നമ്മൾ കൂടുതലും തയ്ച്ചു ഇടുന്നത് അതിൽ ഇങ്ങനെ പല ഇതിൽ നിന്നും പറഞ്ഞും കേട്ടും ഓരോ മോഡലുകൾ പരസ്യവും കണ്ടു ഒക്കെയാണ് അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത്